ഇപ്പോൾ എൻ്റെ ആവിസ്മരണീയമായിട്ടുള്ളൊരു യാത്രാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഇവിടെ പോയതാണ് അതായത് അതായത് എന്താ പറയുക നമുക്ക് കൂടുതലായിട്ടും പോകാനാഗ്രഹിക്കുന്ന കന്യാകുമാരി ആ ഭാഗങ്ങളിലാണ് ഞാൻ ആദ്യമായിട്ട് പോയത് എന്നു പറയുക അത് നല്ലൊരു യാത്രയായിരുന്നു കാരണം എന്ന് വച്ച് കഴിഞ്ഞാൽ ഞാനെൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ടാണ് അവിടേക്ക് പോയത് അപ്പോൾ അതൊരു നമുക്ക് ഒരു അവിസ്മരണീയമായിട്ടുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു യാത്രയായിരുന്നു കാരണം ഞങ്ങളുടെ എൻ്റെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു വീടിൻ്റെ അടുത്തുള്ള പുള്ളിൻ്റെ ജീപ്പ് എടുത്തിട്ടാണ് നമ്മൾ പോയത് ജസ്റ്റ് ചെക്കന്മാരുടെ അടുത്ത് പോയതാണ് അപ്പോൾ അവിടുന്ന് ഞങ്ങള് പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ട് അങ്ങ് പോയതാണ് അതായത് ഇവിടേയ്ക്ക് അപ്പോൾ പെട്ടെന്നൊരു യാത്രയായിരുന്നു അപ്പോൾ വലിയ മുൻകരുതലോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല അപ്പം അങ്ങനെ പോയി ഞങ്ങള് കന്യാകുമാരി എല്ലാ സ്ഥലങ്ങളും കറങ്ങി അവിടെ നല്ല ഭംഗിയാണ് അപ്പം നല്ല രസമാണ് അവിടെ കന്യാകുമാരി കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം അത് കാണാനും പറ്റി നമുക്ക് ഒരു യാത്ര എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയായി അതൊരു നല്ലൊരു യാത്രയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണമെന്ന് വച്ച് കഴിഞ്ഞാല് എല്ലാവരും ഒരുമിച്ച് ഒര് ഇത് പോയത് ഒക്കെ നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു